ആ ഏട്ടാ ഇനി വളരെ അധിക കാലമൊന്നുമില്ല കുറച്ച് തിരക്കായിരുന്നു അതെന്തെന്ന് വെച്ചാൽ കുറച്ച് തെരക്കില് പെട്ടു അതിപ്പോൾ അവർക്ക് ഈ ഓണം കഴിയുമ്പഴേക്കും വീട് ഓപ്പണിങ്ങാവണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് തിരക്കില് പെട്ടു അത് മറന്നിട്ടില്ല നമ്മള് ഇല്ലിലില്ല മറന്നിട്ടില്ല അങ്ങനെ മറക്കാൻ പറ്റുവോ നിങ്ങളെയൊക്കെ ആ ആ ആ ടാങ്കിൻ്റെ അല്ലേ പതിനഞ്ചായിരത്തിൻ്റെ ആ അപ്പതൂ

ആ ആ അപ്പോൾ രണ്ടും കൂടിയിട്ടാകുമ്പോൾ സൗകര്യം ആണല്ലെ അതെ അതെ അപ്പം നമുക്കിത് ഒന്നു മൊത്തത്തില് നമുക്ക് ചെയ്യാം നല്ല രീതിയിൽ അങ്ങട് ചെയ്യാം അതെ അതെ വലിയ പൈപ്പ് നമുക്ക് ഒന്ന് തോട്ടത്തിൽ കൂടെ ഒന്ന് വീട്ടിലേക്ക് കിട്ടുന്നപ്പോലെയെ രണ്ട് കണക്ഷൻ വെച്ചിട്ട് ചെയ്യാം ആ ആ ഇല്ലില്ല നമ്മളിപ്പം നല്ല ഇതിലല്ലെ നമ്മള് കെട്ടിയിരിക്കുന്ന വീടൊക്കെ

ഓ അതാകുമ്പോൾ കോലി കുഴപ്പമില്ല അതാകുമ്പം നമ്മള് വെറുതേ റിസ്ക്കെടുക്കണ്ട പ്രശ്നം വരില്ല അന്നാലും നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം രണ്ട് പില്ലറ് കൊടുത്തും കൊണ്ട് അതെ അതെ ആ നമുക്കെന്നാൽ അങ്ങനെ ചെയ്യാം അതാ കുറച്ചും കൂടെ നല്ലത് ഇപ്പം പേടിച്ച് പേടിച്ച് ഇരിക്കുന്നതിനേക്കാളും നല്ലത് ഇതിപ്പോൾ നമ്മൾക്ക് ഒറപ്പ് പറയാം കുഴപ്പമൊന്നും ഉണ്ടാവില്ലാന്ന് പക്ഷെ നാളെ വേറാരെങ്കിലും ഒക്കെ വന്നിട്ട് ഇതെന്തേലും കുഴപ്പമുണ്ടോന്നൊക്കെ ചോദിച്ചാൽ പിന്നെ നമ്മക്കാകെക്കൂടി ഇരിക്കപ്പൊറുതി ഉണ്ടാവില്ല ഒ അതെ അതെ അതെ അതെ അ അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എവിടുന്നാണ് എടുക്കേണ്ടത് നമ്മള് അത് തന്നെ ആ നമ്മളവിടുന്ന് തന്നെ എടുക്കാം അവിടുന്ന് ആകുമ്പമെന്ന് വെച്ചാൽ നല്ല റേറ്റ് കുറവാണ് നല്ല ഹോൾസെയിൽ റേറ്റില് സാധനം കിട്ടും നല്ല സാധനവാണ് പിന്നെ പത്ത് റുപ്പിയ വിട്ട് തരികയും ചെയ്യും അവര് മറ്റ് അവിടുത്തെ കടകള് പോലെയല്ലെ അറിയാമല്ലെ ആ ആ ആ ആ ആ ആ ആ അത് നമ്മുടെ മറ്റേ കൃഷ്ണൻക്കുട്ടി ഏട്ടൻ്റെ പേരക്കുട്ടിയാണ് ആ കടയുടെ ഓണറെ ആ ആ ആ അതെ അതെ അവര് എന്തെന്ന് വെച്ചാൽ നല്ല സാധനം കൊടുക്കുന്നുണ്ട് കട പെട്ടന്നങ്ങട് ക്ലിക്കായി അതെ അതെ പോകുന്നുണ്ട് പോൺ പിന്നെ നമുക്ക് എടുത്ത് ബാക്കിയുണ്ടെന്ന് പറഞ്ഞാൽ അവര് തിരിച്ചെടുക്കുകയും ചെയ്യും അതെ അതെ അവര് ആ അയാള് പിന്നെ നല്ല സംസാരമാണ് ആ പയ്യൻ പിന്നെ എല്ലാവരേയും വിളിക്കാനും സംസാരിക്കാനുവൊക്കെയേ നല്ലതാണ് ആ അങ്ങനെടുക്കാം അപ്പോൾ പിന്നെ ഈ മണല് മെറ്റല് സിമൻറ്റ് ഇതൊക്കെയോ അതൊക്കേ പകുതിയുണ്ട് ഇല്ലേ ആ ആ ആ ആ നമുക്ക് അന്നൊരു മൂന്ന് യൂണിറ്റ് അടിക്കുക ആദ്യ ഒര് മൂന്ന് യൂണിറ്റ് അടിച്ചിട്ട് നോക്കിയിട്ട് എങ്ങനാന്ന് വെച്ചാൽ അടിച്ചാൽ പോരെ സിമിൻറ്റ് സിമിൻറ്റ് എവിടെ പറയാൻ പറ്റും അ അറിയുന്ന ആളുണ്ടൊ അതോ നമ്മള് പറയണോ ആ ദാസേട്ടൻ്റെ അവിടെ അല്ലെ ആ അ അവിടേലും മതി മതി എന്നാ മലബാർ സിമൻറ്റ് എടുത്താൽ മതി അതാകുമ്പോൾ കുറച്ച് നല്ല നല്ലതാണ് ആ

അതിപ്പോൾ നമുക്ക് ഒരു മൂന്ന് യൂണിറ്റെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പത്ത് ഇരുപത് ചാക്ക് എടുക്കാം അപ്പോൾ അടുത്ത് തന്നെ അല്ലെ കട അപ്പോൾ നമുക്ക് തെ തികഞ്ഞില്ലേൽ പോയി എടുക്കാം വെറുതെ വാങ്ങി വെച്ചിട്ട് ഇനി ഇപ്പോൾ മഴയും അല്ലെ ഇപ്പം നാണൂറ്റി മലബാർ സിമൻറ്റിനൊക്കെ നാണൂറ്റി എഴുവതും മറ്റേ എ സി സി സിമൻറ്റ് വന്നിട്ട് നാണൂറ്റി ഇരുപത് അംബുജം വന്നിട്ട് നാണൂറ്റി നാൽപ്പത് അങ്ങനെയാണ് നമുക്ക് മലബാറ് മതി അതാകുമ്പോൾ നല്ലതാണ് ആ പതിനഞ്ച് ചാക്കെടുക്കാം എന്നിട്ട് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള എടുക്കാം പതിനഞ്ച് ചാക്ക് മതിയാവില്ല എന്നാലും നമുക്കൊരു പതിനഞ്ച് ചാക്കെടുത്തിട്ട് ബാക്കി നോക്കിയിട്ട് ആ ആ ആ അപ്പോൾ എങ്ങനെയാണ് ഈ മറ്റെ കമ്പി എവിടുന്ന് എടുക്കും അപ്പോൾ ഓ ശരി എന്നാ അങ്ങനെ ചെയ്യാം ഞാനെന്നാൽ നമ്മുടെ ചെക്കനേയും കൂട്ടിയിട്ട് വന്നിട്ടെ വൈകീട്ടൊന്ന് അളന്നിട്ട് ഒന്ന് നോക്കീട്ട് നമുക്ക് ചെയ്യാം എന്നാൽ ഇപ്പം രണ്ട് മൂന്നൂ ദിവസം ഒര് ചെറിയ തിരക്കുണ്ട് ഹ് അങ്ങനെ അല്ല അത് അന്നത് കുറച്ച് തിരക്കിൽ പെട്ടതാണ് അത് അവര് പറഞ്ഞിട്ട് കുറെ ആ അപ്പോൾ അത് ചെയ്ത് തൊട്ടപ്പണി ഇനിയിപ്പം നിർത്തീട്ട് വരണ്ടാന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങനെ ആയത് ഇപ്പം നമ്മളിപ്പോൾ തുടങ്ങിയാൽ പിന്നത് നിർത്തി ആ ആ ഓ ശരി ശരി ആ അങ്ങനെയോ അങ്ങനെ മതി മതി മതി അന്നാ നമ്മളെ ചെക്കനേയും കൂട്ടിയിട്ട് വൈകിട്ട് വരാം ഞാനെന്നാൽ ആ ആ ശരിയെന്നാൽ ഏട്ടാ ആ ശരി ആ